ഹലോ ഞാൻ നേരത്തെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ നിങ്ങൾ എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല ഞങ്ങൾ അവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ വേഗം ഒന്ന് എത്തുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അല്ല നിങ്ങളിവിടെ എത്തി എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ കാണുന്നില്ല ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ആ അതെയതെ ഞാൻ ആ മറ്റേ പലചരക്ക് കടയില്ലേ ആ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ഒരു പലചരക്ക് കടയുണ്ട് ആ അപ്പം അവിടെയാണ് ഉള്ളത് ആ പക്ഷേ നിങ്ങളെ ഇവിടെ കാണുന്നില്ല ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു നിങ്ങളിവിടെ എത്തിയോ അതോ വേറെ എവിടെ എങ്കിലും ആണോ ഓ എത്തിയിട്ടില്ല അപ്പം നിങ്ങൾ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലൊ ഞാൻ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾ എത്തി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ തന്നെ വന്ന് നിൽക്കുന്നത് ഇവിടെ കാണുന്നില്ല കുറേ നേരമായിട്ട് ഞാനിവിടെ നിൽക്കുവാണ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ വേഗം വരുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തി എന്ന് ഒന്ന് പറയുക ശരിക്കും നിങ്ങളിപ്പം എവിടെയാണ് ഉള്ളത് കൃത്യമായിട്ട് ആ ഓക്കെ ഓക്കെ എന്നാൽ വേഗം ഒന്ന് വാ കേട്ടോ ഓക്കെ എന്നാൽ